ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വായനക്കുള്ള പ്രാധാന്യം കുറഞ്ഞതായി തോന്നുന്നുണ്ടോ ഇന്നത്തതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് എന്നുള്ളത് വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പ്രായ ഭേദമന്യേ ആളുകൾ എല്ലാ തരത്തിലുള്ള ആവിശ്യങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയയെ ഡിപ്പൻഡ് ചെയ്യുന്നുണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ഞൊടി ഇട കൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ സാധിക്കാറുണ്ട് അതും മാത്രമല്ല ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും അതു പോലെ പൈസ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനും കറൻറ്റ് ബില്ല് അടക്കുന്നതിന് ഫോൺ റീചാർജ് ചെയ്യുന്നതിന് എല്ലാ ആവിശ്യങ്ങളും നമ്മൾക്ക് ഈ ഒരു ഫോൺ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ പോലും എന്നാൽ പോലും ഈ ഒരു കാലഘട്ടത്തിലും വായനയ്ക്ക് ഇപ്പോഴും പ്രാധാന്യം നില നിൽക്കുന്നുണ്ട് എന്നത് മാത്രമല്ല വായിക്കുന്നവരുടെ എണ്ണം നിമിഷനേരം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും എന്ത് കൊണ്ടെന്ന് വച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ വഴി തരംഗമാകുന്ന ഒരു പാട് പുസ്തകങ്ങളുണ്ട് സോഷ്യൽ മീഡിയ റീലുകൾ വഴിയും ആളുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പാട് പുസ്തകങ്ങൾ ഉണ്ട് അതുവഴി വായിക്കപ്പെടുന്ന ഒരു പാട് പുസ്തകങ്ങൾ ഉണ്ട് സോഷ്യൽ മീഡിയ വഴി അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് ഇന്നത്തെ പുതിയ എഴുത്തുകാരെയും അതു പോലെ പുതിയ എഴുത്തുകാരുടെ പുസ്തങ്ങളെയും എഴുത്തിനേയുമെല്ലാം നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയാണ് അതിന് അതിൽ അക്കാര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പറയാതെ ഒരിക്കലും പറയാതിരിക്കാനാവില്ല ഉദാഹരണമായി നമ്മൾ പറയുക ആണെങ്കിൽ റാം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഒഫ് ആനന്ദി എന്നുള്ള പുസ്തകം അതു പോലെ നിന്നാ വിജയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം അതുപോലെ എൻ മോഹനൻ്റെ ഒരിക്കൽ ഈ ഒരിക്കൽ എന്നുള്ള പുസ്തകം ഇപ്പോൾ ഇറങ്ങിയതല്ല അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നെ ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ് ആ സമയത്ത് ഇത് വലിയ തോതിൽ വായിക്കപ്പെട്ടിരുന്നൊരു പുസ്തകമായിരുന്നു എന്നാൽ പതിയെ ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വച്ചിരുന്നു വീണ്ടും ഈ പുസ്തകമൊരു തരംഗമായി മാറുന്നത് വീണ്ടും ആളുകൾ ഒരിക്കൽ എന്ന പുസ്തകത്തെ തേടി വരാൻ തുടങ്ങിയത് തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു റീല് വഴിയാണ് വീണ്ടും ഒരിക്കൽ എന്നുള്ള പുസ്തകം വീണ്ടും ആളുകൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകം വായിക്കാത്ത ആളുകൾ പോലും ഇത്രയും കാലമായിട്ടും വായിക്കാത്ത ആളുകൾ പോലും പുസ്തകം കൈ കൊണ്ട് തൊടാത്ത ആളുകളെപ്പോലും വായിപ്പിച്ചിട്ടുള്ളൊരു പുസ്തകം എന്ന് വരെ ഇന്ന് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകം അറിയുന്നുണ്ട് റാം കെയർ ഓഫ് ആനന്ദി വളരെ പെട്ടന്നാണ് അതിൻ്റെ ഒരുപാട് എഡിഷനുകൾ കമ്പ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ നിമ്നാ വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നീ രണ്ട് പുസ്തകങ്ങളും വൈറലായത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും അത്കൊണ്ട് ഉണ്ടായ മെച്ചം എന്താണെന്ന് വച്ചാൽ ഇത് വരെ വായിക്കാത്ത ഒരുപാട് ആളുകൾ വായിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ കഴിയും ഒരു പുസ്തകം വായിച്ച ഒരാൾ അവിടെ വച്ച് അവരുടെ വായന അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും നമ്മൾക്ക് പറയാൻ കഴിയും അവർ വീണ്ടും അടുത്ത പുസ്തകങ്ങളെ തേടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്

എഴുതുന്ന ആളുകളെ സപ്പോട്ട് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകളും ഇന്ന് നിലവിലുണ്ട് നമുക്ക് ഇസ്റ്റഗ്രാമെല്ലാം തുറന്നാലറിയാം ഒരുപാട് ഒരുപാട് എഴുത്തുകാർ ഒരുപാട് ഒരുപാട് പുതിയ എഴുത്തുകാരും അതുപോലെ പബ്ലിക്കേഷനും ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ ഓൺലൈൻ പബ്ലിക്കേഷനുമുണ്ട് അല്ലാത്ത പബ്ലിക്കേഷനും എല്ലാം ഉണ്ട് നമുക്ക് അവരെയെല്ലാം വളരെ എളുപ്പത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതും പറ്റുന്നതിലും സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ പുതിയ എഴുത്തുകാർ ഒരുപാട് പുതിയ എഴുത്തുകാരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ് പലരാലും അറിയപ്പെടാതെ പോകുമായിരുന്ന ഒരുപാടു എഴുത്തുകാരെ വെളിച്ചത്തിലേക്ക് കൊണ്ട് വന്നതും അവരുടെ അക്ഷരങ്ങളെ ആളുകൾ വായിക്കാൻ തുടങ്ങിയതും വായിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും വീണ്ടും അവരെ വായിക്കാനുള്ളൊരാകാംക്ഷ ആളുകളിൽ ഉണ്ടായതും ഇതിനെല്ലാം സോഷ്യൽ മീഡിയ വളരെ അധികം പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ഒരു അനുമാനം മാത്രമാണ് കൂടുതൽ ആളുകൾ ഓഫ്ലൈനായിരിക്കുന്നവരടെ എണ്ണം ഇന്ന് വളരെ അധികം കുറവാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകളും എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ ആലോചിക്കാറില്ല ഇപ്പോൾ വായിക്കാൻ ഒരു പുസ്തകത്തിൻ്റെ തന്നെ ആവിശ്യമില്ല വായിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഫോൺ വഴി വായിക്കാം ഓൺലൈനായിട്ട് ഒരുപാട് സോഴ്സുകൾ ഇന്ന് നമുക്ക് പുസ്തകം വായിക്കാൻ അവൈലബിൾ ആണ് ഫോണിലൂടെ പി ഡി എഫാക്കി പിഡിഎഫായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ചിലപ്പോൾ യാത്രക്കിടയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്ററൻറ്റിലോ എല്ലാം പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ആയിരിക്കാം ആ ഒരു കിട്ടുന്ന കുറച്ച് സമയത്തായിരിക്കം അവർ ഫോൺ വഴി ഉള്ള ഈ പി ഡി എഫ് വഴി ഉള്ള പുസ്തകങ്ങളെല്ലാം വായിക്കുന്നത് നമുക്ക് ഒരുപാട് കണ്ടമാനം ഈ ബുക്സുകള് നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം വായിക്കുന്നവരുടെ എണ്ണവും വളരെ അധികം കൂടുതലാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴി വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് മറിച്ച് ഒരുപാട് ആളുകളെ വായിക്കാൻ സോഷ്യൽ മീഡിയ പ്രേരിപ്പിക്കുന്നു എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും കാരണം നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഒരുപാട് എഴുത്തുകളെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കിൻറ്റിൽ ആപ്പ് കിൻറ്റിൽ ആപ്പ് വഴി ഒരുപാട് ഇ ബുക്കുകൾ എവേലബിളാണ് അത് ഉപയോഗിക്കുന്നവരു ടെ എണ്ണം വളരെ അധികം കൂടുതലാണ് അതുപോലെ കുക്കു എഫ് മ്മ് പോലുള്ള എന്താ സോഷ്യൽ മീഡിയ ആപ്പ്കൾ കുക്കു എഫ് എമ്മെല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾക്കത് ഇരുന്ന് വായിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു സമയം കണ്ടത്തേണ്ട ആവിശ്യമില്ല വോയ്സുകളായിട്ട് നമ്മൾക്കത് ഓഡിയോ ക്ലിപ്പുകളായിട്ട് നമ്മൾക്ക് നമ്മളിപ്പം ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓഡിയോ ക്ലിപ്പുകള് വഴി നമ്മൾ ക്ക് ഓരോ പുസ്തകങ്ങളെ കുറിച്ചും കേൾക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നൊരു ആപ്പാണ് കുക്കു എഫ് എമ്മ് എന്നെല്ലാം പറയുന്നത് ഇത്തരത്തിൽ വായനയേയും സോഷ്യൽ മീഡിയ വളരെ അധികം പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ മു ന്നെ സെക്കൻഡ് ഹാൻഡാണെങ്കിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് ഹാൻഡാണെങ്കിലും നമ്മൾക്കൊരു പുസ്തകം വേണം എന്നാണെങ്കിൽ നമ്മൾക്ക് പുറത്ത് പോയി അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എല്ലാം കൊടുത്ത് പുറത്ത് പോയി ആ പുസ്തകം വാങ്ങേണ്ട അവസ്ഥ വരാറുണ്ട് അങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിൽ പക്ഷെ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയൊ വഴി പുസ്തകങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എന്താ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ പുസ്തകങ്ങളെല്ലാം വിൽക്കുന്ന ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ അവൈലബിൾ ആണ് നമ്മൾ ഫിസിക്കലി നമ്മൾ ചെന്ന് വാങ്ങുന്ന ഒരു പുസ്തകത്തിനെക്കാൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകളോട് കൂടി നമ്മൾക്ക് പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ വഴി വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു മെച്ചമാണ് അതുപോലെ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെങ്കിലും മലയാളം പുസ്തകങ്ങളാണെങ്കിലും പുസ്തകങ്ങളുടെ വില വളരെ അധികം കൂടുന്നത് കൊണ്ട് തന്നെ പല ഭൂരിഭാഗം ആളുകൾക്കും സാധാരണക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളുടെ ഉപയോഗവും അത് ലഭിക്കുന്നതും വളരെ അധികം സഹായകരമാകുന്നത് ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഓൺലൈൻ ആപ്പ്കളും പുസ്തകങ്ങൾ സെക്കൻഡ് ഹാൻഡായിട്ട് കിട്ടുന്ന ഓൺലൈൻ ഷോപ്പുകളും നമുക്കിടയിൽ വളരെ അധികം സുലഭമാണ് നമ്മൾ പൈസ അവർക്ക് നമ്മുടെ പൈസയും അഡ്രസ്സും എല്ലാം അവർക്ക് ഫോൺ വഴി അയച്ച് കൊടുത്താൽ നമ്മുടെ അഡ്രസ്സിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കൃത്യമായി നമ്മൾ ഏത് ബുക്കാണോ വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആ പുസ്തകം നമുക്ക് ലഭിക്കും എന്നുള്ളത് വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരാൾക്ക് വളരെ അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഒന്നും അതിൽ വരുന്നില്ല നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ അധികം സഹായകരമായിടുള്ളൊരു കാര്യമാണ് ദെൻ പുസ്തകം ഈ പ്രതിലിബി പോലുള്ള ആപ്പുകൾ വായിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ അധികം കൂടുതലാണ് പ്രതിലിബി പ്രതിലിബിയിലെല്ലാം എഴുതുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെ അധികം കൂടുതലാണ് അതുപോലെ ഒരുപാട് ഓൺലൈൻ മാഗസിനുകളുണ്ട് ഓൺലൈൻ ജേർണലുകൾ ഉണ്ട് ഒൺലൈൻ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കുകൾ ഉണ്ട് ഇതിലെല്ലാം എഴുതുന്നവരുടെയും എഴുതി വായിക്കുന്നവരുടെയും എണ്ണം ദിവസങ്ങൾ ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിലെല്ലാം എഴുതപ്പെടുന്നത് വായിക്കുന്നത് കൊണ്ടാണല്ലൊ ഓരോ ദിവസവും ഇത്തരത്തിൽ ഉള്ള ഓൺലൈൻ മീഡിയകൾ വന്ന് കൊണ്ടിരിക്കുന്നത് ട്രൂ കോപ്പി പോലുള്ള ഓൺലൈൻ ജേണലുകൾ അതിലെല്ലാം എഴുതുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അതുവഴി എഴുത്തുകാരെ പരിചയപ്പെടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് അവർ വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പല വിധത്തിൽ സമൂഹത്തിൻ്റെ പല മേഖലകളെയും പലവിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് വായനയുടെ കാര്യത്തിലായാലും ഇപ്പം തീർച്ചയായിട്ടും നല്ലൊരു സ്വാധീനമാണ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്വാധീനമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി വായനയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വായനക്കാരെ വാർത്തെടുക്കാനും പുതിയ എഴുത്തുകാരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ട് വരാനും അവരുടെ എഴുത്തുകളെ ആളുകൾ വായിക്കുന്നതിലേക്ക് എത്തിക്കുവാനും സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ അധികം വലുതാണ് എന്ന് പറയാതിരിക്കാൻ ഒരിക്കലുമാവില്ല